മൃഗങ്ങൾക്ക് മെയ്യാനായിട്ട് പച്ചപ്പ് ഉള്ള സ്ഥലങ്ങൾ ലഭിക്കുക എന്നതിലുപരി മൃഗങ്ങളെ മെയ്യാനായിട്ട് വിടാൻ പറ്റാത്തൊരു കാലമാണല്ലോ ഇന്നൊള്ളത് പച്ചപ്പും പുല്ലുമുള്ളത് നമ്മള് തേടി വിട്ട ചിലപ്പം മൃഗങ്ങളെ തിരിച്ച് കിട്ടണമെന്നില്ല വനത്തിലെ മൃഗങ്ങളെല്ലാം നാട്ടിൽ ഇറങ്ങി മെയ്യുന്നൊരു കാലത്ത് മൃഗങ്ങളെ മെയ്യാൻ വിടാനായിട്ട് നമുക്കിപ്പം ഒരിക്കലും ഇപ്പം സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അത്കൊണ്ട് കൂടുതൽ പേരും മെയ്യാൻ വിടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ളവരാണെങ്കിൽ പോലും അവയെ കൂട്ടിൽ നിർത്തി വളർത്തി വെള്ളവും തീറ്റയും കൊടുത്ത് പരിചരിക്കുക എന്ന ഒരു മാർഗമാണ് കൂടുതലിപ്പോൾ കണ്ട് വരുന്നത് മെയ്യാനായിട്ട് ഉള്ള സ്ഥലങ്ങളിപ്പോൾ കാടിൻ്റെ മൃഗങ്ങൾ കയ്യടക്കി ഇരിക്കുകാണ് പലപ്പോഴും ആട് അതുപോലെ ഉള്ള ചെറു ജീവികളെ വിട്ടാൽ കൂടുതലും നമ്മൾ ഉടമസ്ഥൻ കൂടെ ഇല്ലെങ്കിൽ അവയെ തിരിച്ച് കിട്ടുക വളരെ അപൂർവ്വമാണ് കാരണം കാട്ട് മൃഗങ്ങളാണ് കൂടുതലും ഇപ്പം മെയ്യുന്നത് അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം മെയ്യാനുള്ള സ്ഥലം അപ്പം അതിലുപരി പുല്ല് വച്ച് പിടിപ്പിച്ച് ചെത്തി വണ്ടിലോ മറ്റ് മാർഗ്ഗങ്ങളിലോ മൃഗങ്ങൾക്ക് കൊണ്ടെത്തിച്ച് കൊടുക്കുകയാണ് കർഷകരിപ്പോൾ കൂടുതലും ചെയ്യുന്നത് അത് മാത്രമേ നല്ല ഉറപ്പുള്ള കൂടും പിന്നെ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന സ്ഥലവും വെള്ളവും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങളെ പരിച പണ്ട് കാലങ്ങളിൽ നാടൻ രീതിയിൽ ഉള്ള മൃഗങ്ങളെ വളർത്തുന്നവരിൽ കൂടുതലും എന്നും കുളിയും നനയും ഒന്നും പക്ഷി മൃഗങ്ങൾക്കില്ലെങ്കിൽ പോലും അവ അതിജീവിച്ച് പോവുമായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ ജനസിൽപ്പെട്ട മൃഗങ്ങളെയാണ് കൂടുതലും കണ്ട് വരുന്നവ അതുപോലെ ഉള്ള പരിചരണവും സംരക്ഷണവും കൊടുത്ത് ഇതുങ്ങള് അവ അതിജീവിക്കുക എന്നത് ഇന്ന് കൂടുതൽ പാലും മറ്റും നോക്കിയാണ് വളർത്തുന്നത് എങ്കിലും അതിനെ അതിജീവിക്കാനും അതുപോലെ കഠിന പ്രയത്നം ചെയ്ത് ഏത് ഏത് നേരവും സംരക്ഷണവും പരിചരണവും ഉണ്ടെങ്കിൽ മാത്രമേ അവയെ മുന്നോട്ട് കൊണ്ട് പോവാൻ പറ്റുകയുള്ളു നല്ല അന്തരീക്ഷ ചൂട് കുറവ് വായുസഞ്ചാരം ഒക്കെ കൂടുതല് പണ്ടത്തെ ഒരു മൃഗങ്ങൾക്ക് ആവശ്യമായ ഒരിതാണ് കാരണം മനുഷ്യനെ പോലെ തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം അവയെല്ലാം മൃഗങ്ങളെ കൂടുതൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ മെയ്യുവാൻ പശുക്കളെ വന പ്രദേശങ്ങൾ വന വനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഉള്ളവര് കൂടുതലും അഴിച്ച് വിട്ട് മൃഗങ്ങളെ വളർത്തുന്ന വളർത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അത് പരിസ്ഥിതി മലിനീകരണം ആണ് മൃഗങ്ങളൊക്കെ മൃഗങ്ങളോ മറ്റ് ജീവികളോ ഉണ്ട് എന്നുള്ളതൊന്നും കരുതാതെ മനുഷ്യരിൽ നിന്ന് കയ്യിൽ കിട്ടുന്നതെന്തും വലിച്ചെറിയുകയും എവിടെയും കൊണ്ടിടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇത് മൃഗങ്ങൾക്കതിൻ്റെ ദോഷമോ മറ്റ് ദോഷ ഫലങ്ങളോ ഒന്നും അറിയാതെ അവ എടുത്ത് ഭക്ഷിക്കുകയും പിന്നെ പലപ്പോഴും ഉടമസ്ഥനിത് അറിയുന്ന പോലുമുണ്ടാവുകയില്ല അപ്പോൾ ഏതൊര് സമയത്ത് ഇവയ്ക്ക് എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രശ്നമെന്താണെന്ന് പലപ്പോഴും കണ്ടെത്താൻ കഴിയുക ഉള്ളു അത്കൊണ്ട് ഈ പരിഥിതി എപ്പോഴും ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് മൃഗങ്ങൾ ഉള്ള ഏരിയകളിൽ വളരെ ശുചിത്വപൂർണവും ആയിട്ട് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ മൃഗങ്ങളെ വളരെ സുരക്ഷയോടെ വളർത്തുവാൻ സാധിക്കുകയുള്ളൂ അത്പോലെ ജല സംഭ ജലം കൂടുതല് എപ്പോഴും അവയ്ക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കൂടുതലുണ്ടെങ്കില് അവയെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളു ഏത് സമയവും പെട്ടെന്ന് രോഗങ്ങൾ വരിക മൃഗങ്ങൾക്കായാലും പെട്ടെന്ന് അസുഖങ്ങൾ സംബന്ധിച്ച് പെട്ടെന്ന് താഴെ വീണ് ചത്ത് പോകുന്ന ഒരു അവസ്ഥ മൃഗങ്ങൾക്ക് കാണും കണ്ട് വരുന്നുണ്ട് ഇപ്പോൾ അവയെ സംരക്ഷിക്കാനും അതിന് ഇപ്പോളത്തെ ഭക്ഷണ രീതിയിലും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കാലിതീറ്റ ഇവയിലെല്ലാം കാണുന്ന മാലിന്യങ്ങളും ഒരു ഒരു കാരണമായി തീരാറുണ്ട് പ്രകൃതിയിലെ ഭക്ഷണമാണ് കൂടുതലവയ്ക്ക് പ്രയോജനമെങ്കിൽ പാലും മറ്റും കൂടുതല് കിട്ടുന്നതിന് വേണ്ടി അവയ്ക്ക് മറ്റ് കയ്തീറ്റകൾ കൊടുക്കുന്നത് പലപ്പോഴും നല്ല രീതിയിലല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വളരെ ദോഷങ്ങൾ സംഭവിക്കുകയും നാശം കർഷകന് നഷ്ടമുണ്ടാകുകയും ചെയ്യുന്നു പിന്നെ ഇതാണ് കൂടുതലിപ്പോൾ കണ്ട് വരുന്നത് അപ്പോൾ കൂടുതലും മൃഗങ്ങളെ കൂട്ടിൽ തന്നെ പരിചരിച്ച് പുല്ല് നട്ട് പിടിപ്പിച്ചും പാലുകൾ കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ ഉള്ള പച്ച പുല്ലുകള് നട്ട് പിടിപ്പിച്ച് അവയെ ചെത്തി അരിഞ്ഞ് ഇതരിഞ്ഞ് മെഷീനിനകത്തോ മറ്റോ അരിഞ്ഞ് മൃഗങ്ങൾക്ക് കൊടുക്കുകയും ആണ് ചെയ്യുക കാരണം അപ്പോൾ അവയ്ക്ക് ദഹിക്കാനൊക്ക ദഹനത്തിനും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ആ വക ഒരു പരിചരണം വളരെ ഉപകാരപ്രദമാണ്